വായന വായന ലഹരി പിടിക്കും വായന ഞാനതിൽ മുഴുകട്ടെ മുഴുകട്ടെ മമ ജീവനിൽ നിന്നേ മുരളീ മൃദുരവം ഒഴുകട്ടെ വായനയെക്കുറിച്ച് വിദ്യഭ്യാസത്തെക്കുറിച്ച് ഏറെ അർത്ഥവത്തായിട്ടുള്ള വരികളാണിവ വിദ്യഭ്യാസം ഇല്ലാതെ ഒരു വ്യക്തിക്ക് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ ഞാനേറെ സന്ദേഹവാഹകനാണ്

ഇന്ന് വിജ്ഞാനം വിരൽത്തുമ്പിലാണ് ഇന്ന് വിജ്ഞാനമില്ലാത്തവൻ ഇന്ന് അറിവില്ലാത്തവൻ അവൻ സമൂഹത്തിന് ഒരു ഭാരമായി മാറുകയാണ് കാരണം നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം സഹായിക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ച് നാം എപ്പോഴും ബോധവാനായിരിക്കണം നാം ഒരു അക്ഷയ ഓഫീസിലോ നാമൊരു പൊതു ഇടങ്ങളിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസുകളിലോ പോയിട്ട് ഏത് എന്തെങ്കിലും ഒരു ഫോം ഫില്ല് ചെയ്യാൻ പോലും മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വരുന്ന അവസ്ഥ എത്രയോ ദയനീയമാണ് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് അവർക്ക് കേവലം ലൗകിക ജീവിത സുഖങ്ങൾ ആസ്വദിക്കാൻ കഴിയുമെങ്കിലും അതിനേക്കാളും അതിനേക്കാളും ഉപരി ഭൗതികപരമായിട്ടുള്ള പല പല അവസ്ഥാ വിശേഷങ്ങളും അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അറിവാരുടെയും കുത്തകയല്ല അതറിയാനാഗ്രഹിക്കുന്നവൻ്റെ അവകാശമാണ് എന്ന് നാം ഏറെ ചിന്തികേണ്ടിയിരിക്കുന്നു കാരണം അറിവ് നേടുന്തോറും നമ്മുടെ ബുദ്ധിയുടെ വ കപ്പാസിറ്റിയും ബുദ്ധിയുടെ എല്ലാ വിധ മേഖലകളിലും അറിവുകളെത്തി നമ്മുടെ മനുഷ്യ ശരീരത്തെ എല്ലാ വിധ കാര്യങ്ങൾ കൊണ്ടും പിടിച്ചു നിർത്താൻ സാധിക്കുന്നു എന്ന സത്യം നാം മറന്നുപോകാതിരിക്കുക